ഹലോ ഇതാരാണ്

ആ അത് ശരി ആ ഓക്കേ ഓക്കേ നിങ്ങളേത് ഡിപ്പാട്ട്മെൻറ്റായിരുന്നു അല്ല അല്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ

അവിടെ ഇപ്പോൾ പത്ത് പതിനഞ്ച് ഡിപ്പാർട്ട്മെന്റുണ്ട് ഈ ചിലതിലൊന്നും ഇല്ല ചില ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ അതായത് ഇപ്പോൾ കെമിസ്ട്രി അങ്ങനെ സയൻസ് പരമായിട്ടുള്ള കാര്യത്തിലേ ഉള്ളൂ പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അങ്ങനെയൊക്കെ ഞാൻ മലയാളം തന്നെയാണ് ഏയ് ഇല്ല മാഷൊക്കെ ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേന്നെ പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് മാഷിനെ കുറിച്ച് കണ്ടിട്ടില്ല മലയാളത്തിലെന്നെയാണുള്ളതെന്ന് ആ എഴുത്തുകാരനല്ലേ പുസ്തകമൊക്കെ എഴുതീട്ടുള്ള ആ ആ ആ മാഷൊന്നും ഇപ്പോൾ അവിടെ ഇല്ല പുതിയത് ഇപ്പോൾ ചന്ദ്രിക ഷീബ പിന്നെ സുഭാഷ് ചന്ദ്രൻന്നൊക്കെ പറയുന്ന എഴുത്തുകാരൊക്കെയുണ്ട് പുതിയതായിട്ട് ആ അതെ അതെ ആ ഇങ്ങളിതൊന്നും കണ്ടിട്ടുണ്ടാവില്ലാല്ലേ ഗ്രൗണ്ടിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ പുതിയ ഹോസ്റ്റൽ ഉണ്ടാക്കിട്ടുള്ളത് കുഴപ്പമില്ല ചെറിയൊരു ഏരിയേൽ മൊത്താമാണിപ്പോൾ പക്ഷേ എന്താച്ച് കഴിഞ്ഞാൽ പണ്ടത്തത്ര സൗകര്യയില്ലിപ്പോൾ കൂടുതലിപ്പോൾ ബിൽഡിംഗൊക്കെ വന്നത് കൊണ്ട് കുട്ടികൾക്കൊരു കുറവാണ് പക്ഷേ ഈ ഒരു ഹോസ്റ്റല് വന്നോണ്ടന്നെ പുറത്തുള്ള കുട്ടികൾക്കെല്ലാം പഠിക്കാൻപ്പം നന്നായിട്ട് പറ്റുന്നുണ്ട് അക്കേഷ്യയൊക്കെ ഇപ്പുണ്ട് അത് കപ്പിൾ സ്പോർട്ടായിട്ട് ഇപ്പോൾ അങ്ങനെ അറിയപ്പെടുന്നു ആ ഓക്കേ ഓക്കേ ശരി